നവജാത ശിശുവിന് ഇന്ന് ഇരുപത്തെട്ട് കെട്ടുന്നവരുണ്ട് ജനിച്ചപാട് ഇരുപത്തെട്ട് ദിവസമായാൽ നൂല്കെട്ടൽ കയ്യില് വള മാല അങ്ങനെ എല്ലാ തരത്തിലും എല്ലാവരും വന്ന് കുട്ടിക്ക് പിന്നെ പാലുകൊടുക്കുക അതൊക്കെയാണ് നവധാത്തി നവജാതശിശുവിന് ചെയ്യുന്നത് പിന്നെ പിന്നെ അമ്പത്താറു കഴിക്കുന്നവരുണ്ട് മൂന്നും തൊണ്ണൂറ് കഴിക്കുന്നവരുണ്ട് പിന്നെ ഒരു വയസ്സിന് പിറന്നാളാഘോഷിക്കും പിന്നെ എല്ലാവരും വന്ന് കുട്ടിക്ക് വേണ്ട ഡ്രസ്സും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് കുറേ ഇഷ്ടംപോലെ എല്ലാം ചെയ്തുകൊടുക്കും അങ്ങനെയാണ് ആ ആചാരങ്ങൾ പല തരത്തിലുമാണ് ആഘോഷിക്കുന്നത് കുട്ടി അങ്ങനേ ഒരു വയസ്സ് പിന്നെ ന്ന് രണ്ട് വയസ്സില് അങ്ങനെ പിറന്നാളാഘോഷിക്കും അങ്ങനെയാണ് കുട്ടീൻ്റെ എല്ലാ തരം ആഘോഷങ്ങളും കുട്ടിക്ക് നടത്തുന്നത് ഇതൊക്കെയാണ് കുട്ടീൻ്റെ നവത നവ നവജാതശിശുവിൻ്റെ പ്രത്യേകതകൾ